വിനോദ മൂല്യത്തിന് പേരുകേട്ട കേരളത്തിലെ പ്രധാന സാംസ്ക്കാരിക പരിപാടിയാണ് തൃശൂർ പൂരം ഏറ്റവും ഫേമസ് ആയ ഒരു പരിപാടിയാണ് തൃശൂർ പൂരം ലോകത്തുനിന്ന് പല ജേ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ തൃശ്ശൂർ പൂരത്തിനു പോയി വരാറുണ്ട് അത്രോം ഫേമസായൊരു ആഘോഷമാണ് തൃശൂർ പൂരം തൃശൂർ പൂരം നടക്കുന്ന സമയത്തൊക്കെ അവിടെയെത്താൻ ഭയങ്കര ഭയങ്കര കഷ്ടപ്പാടാണ് ട്രെയിനിന് ബുക്കിങ്ങുണ്ടാവില്ല എല്ലാവരും ലോഡ്ജ് പോലും കിട്ടാണ്ട് അവിടെ ഇവിടെയായിട്ടങ്ങനെ കിടക്കുന്നതും ഉറങ്ങുന്നതും അത്രോം പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും ഭയങ്കര ഫേമസ് പരിപാടിയാണ് തൃശൂർ പൂരം പിന്നെ വിഷു ഒക്കെ ഭയങ്കര അ ഭയങ്കര ഫേമസ് ഒരിതാണ്